ആ ഹലോ എൻ്റെ വീട് പണി നടക്കുകയായിരുന്നു

മലപ്പുറം ആ വീട് പണി നടക്കുകയായിരുന്നു അപ്പം കുറച്ച് മാർബിൾ ആവശ്യമായിട്ട് ഉണ്ടായിരുന്നു ഇപ്പം എന്താണ് പ്രൈസ് വരുന്നത്

ആ ആ ഹോം ഡെലിവറി ഉണ്ടോ ഫ്രീ ആണോ ഹോം ഡെലിവറി വരുന്നത് അതോ ആ ഓക്കെ എത്ര ദൂരത്തേക്കാണേലും ഫ്രീ ആണോ ആ ആ മലപ്പുറം ആ ആ ആ നാളെ നാളത്തേക്ക് കട കാണുമോ ആ ഓക്കെ നാളെ ഒരു ഉച്ച കഴിഞ്ഞ് വരാം ആ നാല് റൂമുകളുണ്ട് ആ രണ്ട് നില വീടാണ് ആ വേണം ആ അതെ

ആ ആ ഉണ്ട് ആ അപ്പം കിച്ചണിലേക്കൊക്കെ ഉള്ള വേറെ കിച്ചണിലേക്കുള്ള സെറ്റൊക്കെ ഉണ്ടോ

ആ ഓക്കെ ആ ഓക്കെ എന്തായാലും ഞാൻ ഷോപ്പിലേക്ക് വരാം നാളെ നാളത്തേക്ക് വരാം

ആ അയച്ചാൽ മതി ആ ലൊക്കേഷൻ അയച്ചേക്ക് ഓക്കെ താങ്ക്യൂ ആ താങ്ക്യൂ